ഹലോ ഇത് മലബാർ റെസ്റ്റോറൻ്റ് അല്ലേ എനിക്കൊരു പ്രോഗ്രാമിനു വേണ്ടി ഫുഡ്ഡ് ഫുഡ്ഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു അപ്പം നാളെ കഴിഞ്ഞ് ബ്രദറിൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം അതിന് കുറച്ച് ചിക്കൻ ബിരിയാണി ആവശ്യമായിരുന്നു വളരെ കുറച്ചു പേർ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് അധികം ബിരിയാണിയുടെ ആവശ്യം വരുന്നില്ല പത്തു പേര് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളൂ അപ്പം അവിടെ എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ലഭ്യമാണോ നാളെ കഴിഞ്ഞത്തേനു വേണ്ടിയാണ് അപ്പം ചിക്കൻ ബിരിയാണി ലഭ്യമാണോ അതെയല്ലേ ലഭ്യമാണല്ലേ അങ്ങനെയാണെങ്കിൽ പത്തു പേർക്കുള്ള ചിക്കൻ ബിരിയാണി വേണം പിന്നെ ഇതിൽ അധികം മസാലയോ എരിവൊന്നും അധികം ചേർക്കേണ്ട അതായത് കുഞ്ഞു കുട്ടികളൊക്കെയുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ അരിയുടെ ബിരിയാണി ആണെങ്കിൽ അതായിരിക്കും നല്ലത് ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പം നാളെ വിളിച്ചു വേണമെങ്കിൽ ഒന്നുംകൂടി ഓർമപ്പെടുത്താം ലഭ്യമാണല്ലോ അല്ലേ ആ ഓക്കെ